കഴിഞ്ഞ ഒരെ ഒരു വർഷത്തിനിടെ ഉണ്ടായ സംഭവം അമ്മ ഞങ്ങളെ വിട്ട് പോയതാണ് അത് മറ അത് ഞങ്ങൾക്ക് അതിൽ നിന്നിപ്പോഴും വെളിയിൽ വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അത് ഒരിക്കലും മറക്കാ മറക്കാനേ കഴിയാത്തൊരു ഇതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ബന്ധുക്കളും എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തി അത് ഞങ്ങൾക്ക് നന്നായി അനുഭവിച്ചു ഞങ്ങൾ അമ്മയില്ല എന്നൊരിത് കൊണ്ട് അച്ഛൻ നന്നായി കുടിക്കണതു കൊണ്ട് ഞങ്ങൾ അമ്മൻ്റെ വീട്ടിലാണ് പോയി നിന്നത് അപ്പം അവിടെ നിന്ന് ആദ്യം കുറച്ച് ദിവസമൊക്കെ നല്ല സന്തോഷത്തോടെയൊക്കെത്തന്നെ ഇരുന്നത് കുഴപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ പോകും തോറും അമ്മ മാമൻ്റെ ഭാര്യ അമ്മായി ഞങ്ങളെ ഞങ്ങൾ നിൽക്കണത് ഇഷ്ടമല്ല ഞങ്ങൾക്ക് പൈസ തരണ്ട ഞങ്ങൾക്ക് പൈസ ചിലവാക്കണത് കൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടാണ്ടായി ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ അവരിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളവിടെ നിൽക്കണത് കൊണ്ട് അവർ അവരിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അത് അമ്മൻ്റെ അമ്മ അമ്മാമ്മക്ക് അത് ഞങ്ങൾ നിൽക്കണത് കൊണ്ടല്ലേ അവർ പോണത് അപ്പം അവരിൻ്റെ പേര കുട്ടികളെ കാണാത്ത ഒരിത് കൊണ്ട് ഞങ്ങളെയും ചീത്ത പറയുമായിരുന്നു നിങ്ങളുടെ അച്ഛനില്ലെ നിങ്ങളെ നോക്കാൻ പിന്നെന്തിനാ നിങ്ങളിവിടെ വന്ന് നിൽക്കണത് അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു ഞങ്ങളെന്നാലും കുറച്ചനുഭവിച്ച് അവിടെ നിന്ന് അമ്മൻ്റെ അനിയത്തിമാരൊക്കെ പറഞ്ഞു അവിടെ നിൽക്ക് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് പക്ഷെ അവർ ഞങ്ങളുടെ ഈ അനുഭവിക്കണ ആ അതൊന്നും അവരറിയണില്ല എന്നാലും അവർ നിൽക്ക് നിൽക്ക് എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കുറേ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ എനിക്ക് ഒരു ചേച്ചിയാണ് അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടി കുറേ അങ്ങനെ സഹിച്ചു പിടിച്ചു കുറേ നിന്നു രണ്ട് മാസത്തോളം നിന്നു പിന്നെ മാമൻ്റെ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാനും പോയി രണ്ട് മാസത്തോളം അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പാമില്ലാണ്ടൊക്കെ പോയി അത് കഴിഞ്ഞ് തിരിച്ച് ഞാനെൻ്റെ വീട്ടിലെക്ക് വന്നു ഒരാവശ്യത്തിനൊരു ഒരു മാസത്തിൻ്റെ ഉള്ള് വരെ നിന്നു അതുകഴിഞ്ഞ് അമ്മൻ്റെ അനിയത്തിമാരോക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട അങ്ങോട്ട് വായെന്നു പറഞ്ഞു അതുകഴിഞ്ഞ് ഞാനും എൻ്റെ ചേച്ചിയും കൂടി അങ്ങോട്ട് പോയപ്പോൾ ആദ്യം അമ്മുമ്മ ഞങ്ങളെ ചീത്തപറഞ്ഞു എന്തിനാ ഇവരെ പറഞ്ഞാൽ കേൾക്കാത്തവരിനെ ഇവിടെ കൊണ്ട് വരണെ അങ്ങനെ ഇങ്ങനേ എന്നൊക്കെ ഞങ്ങളെ കുറേ ചീത്ത പറയുവൊക്കെ ചെയ്തു എന്നാലും ഞങ്ങൾ ഉള്ളിൽ കയറി കയറിയപ്പോൾ ഞങ്ങൾക്ക് എന്തോ നരകത്തിലേക്ക് വന്ന പോലെ തോന്നി ആരുമായിട്ടും ഒരു ഒരു സന്തോഷമില്ലാത്തൊരു ഇത് പോലെ ഫസ്റ്റ് ദിവസം അങ്ങനെയൊക്കെയായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴും ആ പിള്ളേരും എന്താണ് നമ്മളെ അടിക്കുക നമ്മളെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക നമുക്കും ഇരിക്കാനും ഒരു ഇഷ്ടമില്ല പിന്നെ അമ്മായി ആണെങ്കിൽ മുഖം വീർപ്പിച്ചാണ് നിൽക്കുക അപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം നിന്നു ഒരു രണ്ടാഴ്ച നിന്നു അതുകഴിഞ്ഞ് അവിടെ പ്രശ്നമായി ഞങ്ങൾ നിൽക്കണ്ട പറഞ്ഞു മാമം മാമൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു അത് അമ്മമ്മയല്ലേ കുഴപ്പമില്ല നിങ്ങൾ നിൽക്ക് പക്ഷെ അമ്മായി അങ്ങനെ ചെയ്യണത് മാമൻ അറിയണില്ല എന്നാലും ഞങ്ങളവിടെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ നിൽക്കാൻ പറ്റാണ്ടായി ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു അച്ഛൻ എന്നിട്ട് വരികയൊക്കെ ചെയ്തു അച്ഛനും ഞങ്ങളുടെ അമ്മായിയും ചേർന്ന് അച്ഛൻ്റെ ചേച്ചിയും ചേർന്നു വന്നു എന്നിട്ട് പറഞ്ഞു ഇവരിനെ ഇവിടെ തന്നെ നിർത്ത് എന്നാണ് പറഞ്ഞപ്പോൾ അമ്മ അമ്മൻ്റെ അമ്മയും അമ്മായിയും ചേർന്ന് ഇവിടെ നിർത്താൻ പാറ്റില്ലിനി ഇവർ എന്താണ് നിങ്ങൾ നിങ്ങളുടെ അവിടെ തന്നെ കൊണ്ട് പോയി നിൽക്ക് ഇല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽക്കൊണ്ടുപോകൂ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അവർൻ്റെ വീട്ടിലേക്കു തന്നെ കൊണ്ടുവിടുക അങ്ങനെ ഒക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് ശരി പറഞ്ഞ് ഞങ്ങൾ നിൽക്കില്ല പറഞ്ഞു അന്നൊരു നല്ല ദിവസമായിരുന്നു എന്നായിട്ട് ഞങ്ങളെ ഇറക്കി വിടുകാ ചെയ്തേ ഞാനും എൻ്റെ ചേച്ചിയും കൂടി കരഞ്ഞിട്ട് ഞങ്ങവിടുന്ന് ഇറങ്ങി വരുകാ ചെയ്തേ അതുകഴിഞ്ഞ് അച്ഛൻ്റെ വീട്ടിൽ പൊയി അച്ഛൻ്റെ വീട്ടിൽ പൊയ്ക്കഴിഞ്ഞ് അവിടെ കുറച്ച് ദിവസം ഇരുന്നു അപ്പോഴും ഒരുപാട് സങ്കടങ്ങളൊക്കെയുണ്ടായി അവിടെയും എൻ്റെമ്മനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ നിൽക്കാണ്ടായി അവിടെ നിന്ന് ഞങ്ങളങ്ങനെ പക്ഷെ അപ്പോഴും അമ്മൻ്റെ അനിയത്തിമാർ അവരെന്നെ വീട്ടിലേക്ക് വാ പറഞ്ഞ് വിളിച്ചില്ല ഞങ്ങളങ്ങനേ നിന്നു അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറൊരു ഞങ്ങളുടെ അമ്മൻ്റെ മേമേടെ വീടുണ്ട് അവിടെ പോയി നിന്നു അവിടെ വന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോയത് അപ്പോൾ അമ്മൻ്റെ വീട്ടുകാരോ അച്ഛൻ്റെ വീട്ടുകാരൊ ഞങ്ങളെ വിളിക്യെ കാണാൻ വരികയൊന്നും ചെയ്തൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഒന്നര ഒരു വർഷത്തോളം ഒന്നര വർഷത്തോളം ഞങ്ങളവിടെ ഇരുന്നു അത് കഴിഞ്ഞാണ് ഞങ്ങളിവിടേക്ക് ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ആ സംഭവങ്ങളൊന്നും ഒരു വർഷം ഒന്നല്ല രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലായി അത് മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ അമ്മ പോയത് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതായി കിടക്കുകയാണ് എന്ത് വന്നാലും നമ്മുടെ വീട് വിട്ട് ഒന്നും പോകാനേ പാടില്ല എപ്പോഴും നമ്മുടെ വീടേ നമുക്കുള്ളു നമ്മുടെ അച്ഛൻ അമ്മ ഇതാണ് നമുക്കുള്ളു വേറെ എല്ലാവർക്കും കുറച്ചു ദിവസം ഉണ്ടാകും സ്നേഹം അതുകഴിഞ്ഞാൽ ആ സ്നേഹമൊന്നും ഒന്നുമല്ല എല്ലാം പിന്നെ നമ്മളൊരു ശല്യമാകും അവർക്ക് ഇങ്ങനെ ഈ ശല്യത്തിനെ ആണല്ലോ നമ്മൾ കൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വർഷം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങൾ ഇത്തിരിയെങ്കിലും കുഴപ്പമില്ലാണ്ട് വീട്ടിൽ വന്നൊക്കെ ഇരിക്കണത്